ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ പരമ്പരാഗത വസ്ത്രധാരണ രീതികൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് മെയിനായിട്ടും കേരളത്തിലോക്കെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് കൂടുതല് നമ്മള് കേരളത്തിലെ അവസ്ഥ വേറെ തന്നെ രീതിയിൽ നമുക്ക് പെട്ടന്ന് മനസ്സിലോടിയെത്തുന്നത് അതായത് സാരി പിന്നെ സൽവാർ കമ്മീസ് മുണ്ടുണ്ട് തലപ്പാവ് വേഷ്ടിയും നേരിയതും അതുപോലെ മുണ്ടും നേരിയതൊക്കെ പിന്നെ ഓരോ തുണികള് കലങ്കാരി തുണികള് അജ്രഖ് അതൊക്കെ ഓരോ മെറ്റീരിയാളുകളാണ് നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് അതൊക്കെ അങ്ങനത്തെ ഒക്കെയാണ് കൂടുതലും നമുക്ക് കേരളത്തില് യൂസ് ചെയ്യാറ് ഇപ്പോളത്തെ കാലത്തൊക്കെ കൊടുത്താലും കുട്ടികള് ഒരുവിധം കുട്ടികളാണെങ്കിലും ചുരിദാറൊക്കെ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് എല്ലാവരും ജീൻസും ടോപ്പും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് ചുരിദാർ ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട്തന്നെ അതുകൊണ്ട്തന്നെ പിന്നെ നമുക്ക് പിന്നെ നമുക്ക് പിന്നെ മനസിലാക്കാൻ പറ്റും ഇപ്പോഴും വച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ഒര് എല്ലാവരും മോഡേൺ ഡ്രെസ്സുകളാണ് യൂസ് ചെയ്യുന്നത്